ഞങ്ങളുടെ പ്രദേശം കേരളത്തിലെ തൃശ്ശൂർ എന്ന ജില്ലയിലെ തൊയക്കാവ് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഒരു കുറച്ച് നീങ്ങീക്കയിഞ്ഞ ഞങ്ങളെ ഭാഗത്ത് സൈഡ് തന്നെ ഞങ്ങളൊരു കടൽ സൈഡ് തന്നെ ഞങ്ങളെ തൊയക്കാവെന്ന സ്ഥലമൊക്കെ വരുന്നത് അപ്പോൾ അവിടെ ഒരു അഴിമുഖം ബീച്ചെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അധികം ആർക്കും ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാർക്കൊഴികെ ബാക്കിയാർക്കും അധികം അറിയില്ല ആ സ്ഥലത്തിനെ പറ്റിയിട്ട് വളരെ ബ്യൂട്ടിഫുളായ ഒരു പ്ലേയ്സാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് കടലുകളിൽ ഇറങ്ങുന്ന അത്ര പെട്ടെന്നൊന്നും കടലിലേക്കിറങ്ങാൻ പറ്റില്ല കാരണം തിരമാല വളരെ വലുതാണ് വരിക കുറച്ച് ദൂരം മാത്രമേ പോവാൻ പറ്റൂ കുറച്ച് ദൂരന്നെച്ചാ വളരെ കുറച്ച് പോവാനേ പറ്റുകയുള്ളു പക്ഷെ അഴിമുഖത്തങ്ങനെയല്ല ചെറിയ തിരമാലകളും അത്യാവശ്യം ദൂരം വരെ നമുക്ക് നടന്നുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അഴിമുഖം ബീച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ പിള്ളേർക്കായും വലിയവരായാലുമൊക്കെ അപകടങ്ങൾ കുറവാണ് നല്ല കാണാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ സൺ റൈസും കാണാം തൊട്ടടുത്ത് തന്നെ ഒരു ഫിഷിങ് ഹാർബറുണ്ട് അപ്പം കുറേ ഈ ബോട്ടുകൾ ഫുള്ള് അഴിമുഖത്തിൻ്റെ സൈഡിൽക്കൂടെയാണ് പോവുക ഒരു ഈവനിങ് സൈഡ് അഴിമുഖത്ത് വന്നാൽ വളരെ അധികം നല്ല ഭംഗിയാണ് കാണാൻ നല്ല കുറെ കുറെ ബോട്ടുകളും എല്ലാ ബോട്ടുകളും തിരിച്ച് വരുന്ന ടൈം ആണ് ഈവനിങ് ടൈം അപ്പോൾ പോയ ബോട്ടുകളൊക്കെ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളൊക്കെ തിരിച്ചുവരും പിന്നെ അവിടെ വച്ചിരിക്കുന്ന പൈൻ ഫോറസ്റ്റ് പോലത്തെ ട്രീകളുണ്ട് പൈൻ ട്രീ അതും പിന്നെ കല്ലൊക്കെ ഇട്ടിട്ട് കുറച്ച് നീട്ടം വരെ കടലിൻ്റെ കുറച്ച് ദൂരം വരെ കല്ലിട്ടിട്ട് നടക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ക്കേ കാണിച്ച വളരെ നല്ല ബ്യൂട്ടിഫുളായ സ്ഥലാണ് മെയിൻ അട്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കടലിലേക്ക് കുറച്ച് അധികം വരെ നമുക്ക് വെറുതെ നടക്കാം അത്ര താഴ്ച യെ ഉള്ളു വെള്ളത്തിന് എന്നുവച്ചാൽ കടൽ തിരമാലയും ഉണ്ട് അപകടം വളരെ കുറവണ് അപ്പോൾ ഈ ഒരു സ്ഥലം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേയ്സാക്കാൻ പറ്റിയാൽ അടിപൊളി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതാണ് ഞങ്ങളൊരു ഭാഗത്തൊരു നല്ലൊരു വിനോദസഞ്ചാരമായിട്ട് പ്രചരിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സ്ഥലം